നമ്മുടെ നാട്ടിലിപ്പോൾ സയൻസ് ടെക്നോളജി അതിൻ്റെയൊക്കെ വളർച്ചയോടുകൂടി തന്നെ ആരോഗ്യ പരിപാലനം വളരെ നല്ല രീതിയിലാണ് പോകുന്നത് അതിപ്പോൾ നമ്മുടെ എന്ത് ആരോഗ്യപരമായ എന്തസുഖമാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള മാർഗ്ഗ നിർദ്ദേശം നേടാനും നമുക്ക് സാധിക്കുന്നുണ്ട് അതിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കണ്ണ് പരിശോ കണ്ണ് കാഴ്ച കമ്മിയാണെങ്കിൽ അത് പരിശോധിക്കാൻ തന്നെ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകണോ അല്ലെങ്കിൽ നമുക്ക് ക്യൂ നിൽക്കേണ്ടിയോ കൂടുതൽ നേരം അവിടെ നിൽക്കേണ്ടിയൊന്നും വരുന്നില്ല വിത്തിൻ സെക്കൻഡുകൾ കൊണ്ടുതന്നെ മിനിറ്റുകൾ കൊണ്ടുതന്നെ നമുക്കെന്താണ് അസുഖം എന്നും നമ്മുടെ നാട്ടിൽത്തന്നെ കൊണ്ടുവന്ന് പരിശോധിക്കാനും ചെറിയ ക്യാമ്പ് നടത്തി പരിധോധിക്കാനും നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനും സയൻസ് ടെക്നോളജി ആണെങ്കിലും ടെക്നോളജികളൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട്